ഇപ്പം നഗരങ്ങള് കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടങ്കിൽ ഇപ്പം ഫുള്ളി എന്താണ് ഇപ്പം ഒരു ഫുള്ളായിട്ട് എല്ലാം ഒര് അപ്പാർട്ട്മെൻറ് കാര്യങ്ങള് അങ്ങനത്തെ രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഫാസ്റ്റ് എന്നുള്ള ഒരു ചെറിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം ചുറ്റുപാടുമുള്ള വീട്ടുകളോ കാര്യങ്ങളോ അടുത്തുള്ള ഒരു ആളും അറിയുക പോലും ചെയ്യാത്ത ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് ഉള്ളത് പിന്നെ നഗരങ്ങളിൽ എന്ന് പറയുമ്പോൾ മൊത്തം ഇപ്പം ഒരു ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലാത്ത ഇവിടെ സ്ഥലങ്ങളൊക്കെയാണെന്നുണ്ടങ്കി നമുക്ക് നമ്മുടേതായ കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള അയലോക്കക്കാരൊക്കെ ആയിട്ടാണെങ്കിലും കുറച്ച് ഫ്രണ്ട്ലി കാര്യങ്ങളും പിന്നെ നമുക്ക് സ്വന്തമായി കുറച്ച് കൃഷിയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയും പിന്നെ അതുപോലെ തന്നെ വീടാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ചുറ്റും കുറച്ചു മരങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നഗരങ്ങളിൽ എന്ന് പറയുമ്പം എന്നാല് എന്താ ഇപ്പം പുതിയ പുതിയ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഗ്രാമങ്ങളില് എന്ന് പറയുമ്പോ ഇങ്ങനെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ് ഇതും കാര്യങ്ങളും പിന്നെ പഴയ രീതിയിലുള്ള കുറച്ച് കൾച്ചറും കാര്യങ്ങളും ഇപ്പോൾ പുരോഗതി കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം ഒരു ഫ്രയിസിലിറ്റിയില് വന്നിരിക്കുന്ന ഒരു സബ്സിഡിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ നഗരങ്ങൾക്ക് എന്ന് പറയുമ്പോൾ മൊത്തം ഹൈടെക് രീതി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ഓടുന്ന ഒരു ലോകത്തിന് പിറകെ നടക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ജീവിതം കാര്യങ്ങൾ പൈസയുണ്ടാക്കാം അതിനു വേണ്ടി മാത്രം ഉള്ള ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങള് ഫുൾ ബിസി ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നേരെ മറിച്ച് ഗ്രാമങ്ങള് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടും അടുത്തുള്ള റിലേറ്റീവ്സും ഗ്രൗണ്ട് കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെയിരിക്കും കാണാൻ പറ്റുക